ഇപ്പോൾ സുസ്ഥിര കൃഷിക്കും ഭക്ഷ്യ സുരക്ഷക്കും വേണ്ടിയിട്ട് നമ്മൾ മൃഗ സംരക്ഷണം നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളു ഇപ്പം നമ്മളിപ്പം ഒരു മാർക്കറ്റിലൊക്കെ പോയിക്കഴിഞ്ഞാൽ ചിലപ്പം നല്ല എന്താ പറയുക നല്ലൊരു പശുവിനെയോ നല്ലൊരു പന്നിയോ പോത്തോ അങ്ങനത്തെ കിട്ടണം എന്ന് ഇല്ല കാരണം നമ്മൾ നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ ഒരു മാംസം മാംസമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യം ആരോഗ്യ പ്രശനങ്ങളൊന്നും ഇല്ലാണ്ട് ഇരിക്കുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടൊരു കാര്യമാണ് ഇപ്പോൾ മറ്റു മൃഗങ്ങളൊക്കെ എന്നു പറഞ്ഞു കഴിഞ്ഞാലിപ്പം പന്നീനെയൊക്കെ വെട്ടുകയ്യെന്നു പറഞ്ഞാൽ ചിലപ്പം വൃത്തിഹീനമൊക്കെയായിട്ടായിരിക്കും വെട്ടുക അത് നമ്മൾ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയി വിൽക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അത് നല്ല രീതിയിൽ വൃത്തിഹീനമായ സ്ഥലത്തിനൊന്നും അതിനെ ഉപ കൊല്ലാണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ സമൂഹത്തിനു വേണ്ടിയിട്ട് മാതൃകയായി നിൽക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ഇവിടെത്തന്നെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ മൃഗങ്ങൾക്ക് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള മൃഗങ്ങളെ നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്